ഹലോ വസന്തി പറഞ്ഞ ഹോട്ടൽ അല്ലേ ആ ഞാൻ ഒരു ഓർഡറ് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് നിങ്ങളെ ഒരു പരിപാടിയുണ്ട് അങ്ങനെ പിന്നെ മസാല ദോശക്ക് എത്ര വരുന്നത് ഇപ്പോൾ ഷമ്മാദ് ആ ആ ഇത് മസാല ദോശ എത്ര ഉണ്ട് ഇപ്പോൾ സിംഗിളായിട്ട് എടുക്കുമ്പോൾ സാധാരണ അപ്പോൾ ചിലർ നൂറ് നൂറ്റി അൻപതെല്ലാം എടുക്കുമ്പോൾ നാൽപ്പതിന് കിട്ടുമോ പിന്നെ നിങ്ങളുടെ നിങ്ങളത് തന്നെ വണ്ടിയുണ്ടാവുമോ ഡെലിവറി ചാർജുണ്ടോ ചാർജുണ്ടോ ആ പിന്നെ ഇഡ്ലി ഇഡ്ലി സാമ്പാർ ചട്നി എല്ലാമുണ്ടോ അതിനെത്ര വരുന്നു സാറ് ആ അതിനെത്ര വരുന്നു സർ ആ ആ അങ്ങനെ എനിക്ക് ഈ പരിപാടിയില്ലെങ്കിൽ ഈ മാസം പതിനെട്ടിനാണ് ആ കല്യാണമല്ല എൻ്റെ മോൻ്റെ നിശ്ചയിപ്പ് ആ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒന്ന് ഇതാക്കണായിട്ട്ണ്ടേയിന് അപ്പോൾ പരിപാടി നൂറാക്കുള്ളത് പക്ഷെ ഇപ്പോൾ നൂറെണ്ണം മസാല ദോശ വേണം എന്നില്ല ഞാൻ പറയുന്നത് ഒരമ്പത് മസാല ദോശയും ഒരു മുപ്പത് പ്ലേറ്റ് അതായത് ഇഡ്ലി അങ്ങിനത്തെ എടുക്കുന്നതാണ് നല്ലത് പിന്നേ ആ ഞാനാ ഞാൻ നിങ്ങട്ത്തന്നെ വിളിക്കാൻ കാരണം എന്താണെന്ന് വച്ചാൽ ഇപ്പോൾ വസന്തി പറയുന്നത് ഞാൻ അധികം കഴിക്കുന്ന ഹോട്ടലാണ് നല്ല ടേസ്റ്റി ഫുഡാണ് ഹെൽത്തി ഫുഡാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് തരുന്നത് കണക്കന്നെ എൺപ്തും തരണം എൺപതാവുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരാൻ പാടില്ല നിങ്ങൾ ഒരു ട്രെസ്റ്റിലാണ് നമ്മൾ വിളിക്കുന്നത് ഓക്കെ പിന്നെ അ ആ അത് തന്നെ ഞാൻ ഓർഡറ് ചെയ്യുന്നുണ്ട് പിന്നെ അഡ്വാൻസ് പേയ്മെൻറ്റ് എന്തെങ്കിലും വേണോ ആ ഈ വാട്ട്സപ്പിലേക്കല്ല വേറെ നമ്പര് പറയാം നോട്ട് ചെയ്തോ എൺപത്തി ആറ് പൂജ്യം അറുപത്തി ആറ് അമ്പത്തി ഒന്ന് ഇരുന്നൂറ്റി മൂന്ന് ആ ആ അതിലേക്ക് വാട്ട്സപ്പ് അയച്ചോ ആ ഓക്കെ ഞാൻ അതിലേക്ക് അഡ്വാൻസ് ആക്കാം നിങ്ങൾ എമൗണ്ട് ഇട്ടാൽ മതി ഓക്കെ ആ ലിസ്റ്റും കൂടി അയക്കാം ശരി എന്നാൽ ഓക്കെ ആ പതിനെട്ടാം തീയതിയാണ് ആ ഓക്കെ